എൻ്റെ ഫസ്റ്റ് പ്രോഡക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൂ ഡ്രൈവറാണ് കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ഡ്രൈവർ നമ്മൾ യൂസ് ചെയ്യുന്നത് പല ആവിശ്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്ടാണ് ഇത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് മെയിൻ ആയിട്ട് ഇപ്പോൾ ഒരു വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ വണ്ടീൻ്റെ ഓരോ സാധനങ്ങൾ ഇപ്പോൾ ഓരോ ഇപ്പോൾ സ്റ്റിയറിംഗിൻ്റെ അവിടെ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ ഇളകുന്ന സൗണ്ടോ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ നമ്മൾ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒരു മൈനസ് ഉണ്ട് ഇല്ലെങ്കിൽ സ്റ്റാറുണ്ട് അതിൻ്റെ ചെറുതുണ്ട് അങ്ങനത്തെ പലരീതി സൈസിലുള്ള സാധങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ അപ്പോൾ അതിൽ നമ്മൾ ഏതെങ്കിലും ഒന്ന് ഇട്ടു കഴിഞ്ഞിട്ട് നമ്മൾ അത് അതിൽ ലൂസായത് ടൈറ്റാകാനൊക്കെ യൂസ് ചെയ്യും അപ്പോൾ ആ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ നിന്നോളും അപ്പോൾ അതിനൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ പ്രോഡക്ട് യൂസ് ചെയ്യുന്നത് പല ഇതിനൊക്കെ എന്നല്ല മൊത്തത്തിൽ നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് അതിപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഗ്യാസ് കുറ്റീൻ്റെയൊക്കെ മുകളിലുള്ള നമ്മുടെ പല സാധങ്ങളൊക്കെ നമ്മൾ ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീട്ടിൽ നമ്മളെ തേപ്പ് പെട്ടി ഒക്കെ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണ് കൂടുതലായിട്ടും സ്ക്രൂ ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്നത് പല ആവശ്യങ്ങൾക്ക് ആയിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവേഴ്സ് യൂസ് ചെയുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോഡക്ടാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് അടിപൊളി പ്രൊഡക്ടാണ് അത്